ആദ്യം ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുകയും വായിച്ചു തുടങ്ങിയ ശേഷം ഇഷ്ടപ്പെടുകയും ചെയ്ത പുസ്തകങ്ങൾ ഉണ്ട് അതിലൊന്നാണ് രണ്ടാമൂഴം രണ്ടാമൂഴം ശരിക്കും പറഞ്ഞാല് അച്ഛന് നിര്ബന്ധിച്ചിട്ടാണ് ഞാന് വായിച്ചു തുടങ്ങുന്നത് പക്ഷെ അതില് വളരേ പാടുള്ള ഭാഷ കാരണം എനിക്കതാദ്യം വായിക്കാന് തോന്നിയിരുന്നില്ല പലവട്ടം വേണ്ടാ വേണ്ടാ എന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് പിന്നെയും ഈ രണ്ടാമൂഴം പുസ്തകത്തിനെപ്പ റ്റി കേൾക്കുകയും അതിന്റെ നല്ലൊരു പുസ്തകമാണെന്ന് പലരും പറയുന്നതറിഞ്ഞ് പിന്നെയും കഷ്ടപ്പെട്ട് വായിക്കാന് ശ്രമിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഉള്ള ശ്രമത്തിന്റെ ഫലമായി കുറെ നാള് പാടുപെട്ടാണ് ഇത് വായിച്ച് തീർക്കുന്നത് ശെരിക്കും എം ടി വാസുദേവന് നായര് രചിച്ച മലയാളത്തിലെ ഒരു നോവലാണ് രണ്ടാമൂഴമെന്ന് നമുക്കെല്ലാര്ക്കുമറിയാം മഹാഭാരത കഥ തന്നെയാണ് അതില് പറയുന്നത് പക്ഷെ മഹാഭാരത കഥയില് പറയുന്നതില് നിന്നെന്താണ് വ്യത്യസ്തം വ്യത്യസ്തം എന്ന് പറഞ്ഞാല് ഭീമന്റെ കാഴ്ചപ്പാടില് നിന്നും മഹാഭാരതം കഥ എങ്ങനെയാണോ നടന്നത് അതിനെയാണ് രണ്ടാമൂഴത്തില് പറയുന്നത് അഞ്ച് മക്കളിൽ രണ്ടാമനാണ് ഭീമന് എന്ന് നമുക്കറിയാം പാണ്ഡവരില് പക്ഷെ എപ്പഴും അര്ജുനനോ അല്ലെങ്കില് യുധിഷ്ഠിരനോ ആണ് എപ്പഴും എല്ലാ അവസരങ്ങളും കിട്ടുന്നത് അല്ലെങ്കില് മൂത്തവരെപ്പഴും തിരഞ്ഞെടുക്കുന്നത് ഇവരെ രണ്ടു പേരെ ആയിരിക്കും അപ്പം രണ്ടാമത് മാത്രമാണ് ഓക്കെ രണ്ടാമതാര് എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് ഭീമന്റെ പേര് ആരെങ്കിലും പറഞ്ഞ് അവിടെ വരുന്നത് അതുകൊണ്ടാണ് രണ്ടാമൂഴം എന്നുള്ള പേര് ഈ പുസ്തകത്തിനെടുത്തിരിക്കുന്നത് കാരണം മഹാഭാരത കഥ ഭീമന്റെ കാഴ്ച്ചപ്പാടില് എങ്ങനെയാണ് എന്നുള്ളത് ഈ പറഞ്ഞ സംഭവം പാഞ്ചാലിയുടെ കാര്യത്തിലാണെങ്കിലും ഭീമന് നേരിട്ടിട്ടുണ്ട് കാരണം രണ്ടാമത് മാത്രമേ പാഞ്ചാലിക്കാണെങ്കില്പ്പോലും ഭീമനോട് സ്നേഹമുണ്ടായിരുന്നു ആദ്യം ഉള്ള സ്നേഹം അര്ജുനനോടാണ് അപ്പോൾ ഭീമനെ അത് വളരെയധികം ബാധിച്ചിരുന്നു പക്ഷെ തന്റെ സഹോദരങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഭീമനതൊന്നും കാര്യമായിട്ടെടുത്തില്ല കാരണം അത്രയധികം തന്നേലേറെ സഹോദരന്മാരെ സ്നേഹിച്ച ഒരാളാണ് ഭീമന് രണ്ടാമൂഴത്തിന്റെ കഥ ഈ പറഞ്ഞത് പോലെ മഹാഭാരതത്തിന്റെ കഥ തന്നെയാണങ്കിലും വളരെ ഭീമന് കൂട്ടത്തിലേറ്റവും കൂടുതല് കൈകള്ക്കും കാലുകള്ക്കുമൊക്കെ ശക്തിയുണ്ടായിരുന്ന വ്യക്തിയാണ് ഭീമന് ബാ ബാക്കിയുള്ളവരെല്ലാം ആയുധങ്ങള് കൊണ്ടായിരുന്നെങ്കില് ഭീമന് സ്വന്തം കൈ മാത്രം മതിയായിരുന്നു ആളുകളെ ജയിക്കാന് വേണ്ടിയിട്ട് അപ്പോൾ അത്രയും ശക്തിയുള്ള ആളാണെങ്കില്പ്പോലും വളരെ നിസാരമായ ചിന്താഗതിയുള്ള ഒരു മനുഷ്യനാരുന്നു ഭീമന് വളരേ സാധാരണ സാമാന്യ മനുഷ്യരെപ്പോലെ ചിന്തിക്കുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നു ഭീമന് അപ്പോൾ ഈ വളരെ ശക്തനും അതുപോലെ വളരെ സാധാരണക്കാരനുമായ ഭീമനെന്ന മനുഷ്യന്റെ മനസിൽ കൂടെ പോകുന്ന ചിന്തകളും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ കാണുന്ന രീതിയും വികാരങ്ങളും അങ്ങനെ ഭീമന്റെ നിത്യ ജീവിതത്തില് അവന് കാണുന്നതിനെയും കേള്ക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളും അതിനോടുള്ള അവന്റെ കാഴ്ച്ചപ്പാടും സംഭവങ്ങളും ഒക്കെ ആണ് രണ്ടാമൂഴത്തില് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ നിസാര ചിന്തിക്ക ചിന്തക്കാരനായ ഭീമന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ വളരെ താത്വികമായി ചിന്തിക്കുന്ന സഹോദരമ്മാരുടെ ചിന്തകളൊന്നും ഭീമന് മനസിലാവുന്നുണ്ടാരുന്നില്ല ഇതെന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത് ചെയ്യുന്നത് എന്നൊന്നും ഭീമന് മനസിലായിരുന്നില്ല കാരണം ഭീ ഭീമന് എന്തെങ്കിലും ജയിക്കണം എന്ന് വിചാരിച്ചാൽ ഭീമനത് കിട്ടണം അത്രയും ഉള്ളു അതിന്റെ ന്യായം അന്യായവൊന്നും നോക്കുന്നൊരു മനുഷ്യനായിരുന്നില്ല എന്നാല് വളരെ നല്ലൊരു മനുഷ്യനുമായിരുന്നു എപ്പഴും ന്യായത്തിനു വേണ്ടി മാത്രം ശക്തി ഉപയോഗിച്ച് കൊണ്ടിരുന്ന ഒരു മനുഷ്യനും കൂടിയായിരുന്നു ഭീമന് അപ്പോൾ ഹിഡുമ്പി എന്നൊരു ഭാര്യ കൂടി ഉണ്ടായിരുന്നു ഭീമന് അതുപോലെ തന്നെ ഉണ്ടായിരുന്നതാണ് ദ്രൗപദി അതായത് പാഞ്ചാലി ഹിഡുമ്പിയിൽ ഒരു മകനുണ്ടായിരുന്നു ദ്രപതിയേയും ഭാര്യയായിത്തന്നെയാണ് വിചാരിച്ചിരുന്നത് ഹിഡുമ്പി ഒരു രാക്ഷസിയായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പിന്നെ ഭീമന്റെ വേറൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ജനിച്ചതിന് ശേഷം സ്വന്തമായിട്ട് നമുക്കറിയാം കുന്തിദേവി ഓരോ ദേവന്മാരെ പ്രീതിപ്പെടുത്തിയാണ് ഓരോ മക്കള്ക്കും ജന്മം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടോരോ മക്കള്ക്കും ഓരോ പിതാക്കന്മാരാണ് വായുദേവന് അങ്ങനെയുള്ള പല ദൈ ദൈവങ്ങൾ ഇന്ദ്രദേവന് അങ്ങനെയാണ് അപ്പം വായുദേവനാണ് തന്റച്ഛന് എന്ന് വിശ്വസിച്ചിരുന്നിട്ട് പിന്നീടാണ് ഭീമനറിയുന്നത് ഒരു കാട്ടാളനായിരുന്നു തന്റെ അച്ഛന് അതുകൊണ്ടാണ്

സന്തോഷമായിരുന്നെങ്കില് തന്നെയും പെട്ടെന്ന് ഇത്രയും നാള് താന് അച്ഛന് എന്ന് വിചാരിച്ചിരുന്ന ഒരാള് വായുപുത്രനാണ് എന്ന് വിചാരിച്ചിരുന്നിട്ട് പെട്ടെന്ന് അത് അല്ല എന്ന് അറിഞ്ഞതിന്റെ ഒരു വിഷമം ഭീമൻ ഈ രണ്ടാമൂഴത്തിൽ കൂടെ പറയുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞത് പോലെ മഹാഭാരത യുദ്ധം മഹാഭാരത യുദ്ധത്തിന് ശേഷം ഒരു മല കയറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സഹോദരന്മാരായിങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പം ഏറ്റവും മൂത്ത സഹോദരനിങ്ങനെ പറയുന്നുണ്ട് തന്റെ ഓരോരുത്തരുടെയും പാപങ്ങള് കാരണമാണവര് വീഴുന്നത് കാരണം ഇവർ ഈ മ യുദ്ധം കഴിഞ്ഞ് സ്വര്ഗം തേടിയാണ് പോകുന്നത് അപ്പം അങ്ങനെ പോയി കൊണ്ടിരിക്കെ പാഞ്ചാലി വീഴുമ്പോൾ ആരും പിടിക്കാൻ ചെല്ലുന്നില്ല പക്ഷെ ഭീമന് പിടിക്കാന് ചെല്ലുന്നുണ്ട് അപ്പം ഭീമന്റെ ഒരു സ്നേഹത്തിനേയാണ് നമ്മൾ അതിൽ കൂടെ തീർച്ചയായും കാണുന്നത് തീര്ച്ചയായിട്ടും കാരണം ബാക്കി ആരും ഇത്ര അര്ജുനനും ഒക്കെ ഉണ്ടായിട്ടും ഈ അഞ്ചു പേരുടേയും ഭാര്യയായിരുന്നു പാഞ്ചാലി എങ്കിൽ പോലും ഭീമന് മാത്രമേ അവിടെ സഹായിക്കാന് ചെന്നുള്ളു അപ്പോൾ ഭീമനത്രയും അകമഴിഞ്ഞാണ് എല്ലാവരേയും സ്നേഹിച്ചുകൊണ്ടിരുന്നത് സഹോദരമ്മാരെ ആയിക്കോട്ടെ ഭാര്യമാരെ ആയിക്കോട്ടെ അങ്ങനെയാണ് സ്നേഹിച്ചിരുന്നത് പക്ഷെ ഇത്രെയും സഹായിക്കാന് ചെന്ന ഈ ഭീമനെപ്പോലും ഒരു രണ്ടാമൂഴക്കാരനായിട്ടാണ് ദ്രൗപദി വെച്ചിരുന്നത് എന്നത് മറ്റൊ മറ്റൊരു സത്യമാണ് പിന്നെ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ വായിച്ച് വായിച്ച് വരുന്നതിലൂടെ ആണ് ഈ പുസ്തകം പതിയെപ്പതിയെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നതും അതുപോലെ തന്നെ മറ്റേത് കഥാപാത്രങ്ങളെക്കാട്ടിലും ഭീമനോട് ഒരു ഒരു ആരാധന തോന്നുന്നതുവൊക്കെ കാരണം ഇത്രയും സ്നേഹമുള്ളൊരു മനുഷ്യന് ഇത്രയും നല്ലൊരു മനുഷ്യന് ഇത്രയും കളങ്കമില്ലാത്തൊരു മനുഷ്യന് എന്നുള്ളൊരു ചിന്ത ഉള്ളില് കയറുകയു ആ ആളുടെ കാഴ്ച്ചപ്പാടില് നിന്ന് ഈ വലിയ മഹാഭാരതം അറിയാന് സാധിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ബുക്ക് ഇഷ്ടപ്പെടുന്നത് ഇതില് പല അദ്ധ്യായങ്ങളുണ്ട് ഇവർക്ക് യാത്രാ അതുപോലെ കൊടുങ്കാറ്റിന്റെ മര്മ്മരം വനവീഥികള് അങ്ങനെ കുറെ ഓരോ കാലങ്ങള് പറയുന്ന ഇപ്പം വിരാട രാജ്യത്ത് ജീവിച്ചിരുന്ന സമയത്തെ കഥകള് പറയാൻ വിരാടം എന്ന് പറഞ്ഞ് ഒരദ്ധ്യായമുണ്ട് പിന്നെ പഞ്ചവർണ്ണപ്പൂക്കൾ അതുപോലെ പാഞ്ചാലിയുമായിട്ടുള്ള സ്നേഹമുണ്ടായിരുന്ന സമയങ്ങൾ ഉള്ള ഓരോ അദ്ധ്യായങ്ങൾ ഉണ്ട് ജീർണ്ണ വസ്ത്രങ്ങൾ ഇവർക്ക് വസ്ത്രങ്ങള് പോലും ഇല്ലാതിരുന്ന സമയങ്ങൾ ഉള്ള കാലഘട്ടങ്ങളും ഇവര് കാട്ടിൽ വസിച്ചിരുന്ന സമയങ്ങളും എല്ലാം ഇതില് പറയുന്നുണ്ട് അങ്ങനെ പയ്യെപ്പയ്യെ വാതി വായിച്ച് വായിച്ച് ആ എഴുത്തിന്റെ ഒര് ശൈലി നമുക്കും കൂടി മനസിലായി പിന്നീടത് വളരെ കൗതുകകരമായാണ് തോന്നിയത് കാരണം അടുത്തടുത്ത എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ഈവൻ ദോ മഹാ ഭാരത കഥ നമുക്കറിയാമെങ്കിൽ പോലും വേറൊര് കാഴ്ച്ചപ്പാടാണിതിൽ നിന്ന് കിട്ടിയത് അങ്ങനെ കാണാൻ വളരെ കൗതുകം തോന്നുകയും ആകാംഷ ഉണ്ടാക്കുകയും ചെയ്തൊരു പുസ്തകമായത് കൊണ്ടാണ് പിന്നീട് ഇതിനോട് ഇഷ്ടം കൂടിത്തുടങ്ങിയതും ഇത് വായിച്ചതും അങ്ങനെ ഇതിനോടുള്ള വളെ ഇന്നും കിട്ടിയാൽ വായിക്കും എന്ന് പറയുന്ന ഒര് പുസ്തകങ്ങളിൽ ഒന്നായി മാറി രണ്ടാമൂഴം